ഹലോ ഹലോ ആരാണ് വിളിക്കുന്നത് ആ ആ അതെ രാമങ്കലിലാണ് എൻ്റെ മില്ല് അവിടെ നെല്ല് കുത്തുന്നുണ്ട് അരി പൊടിക്കുന്നുണ്ട് തേങ്ങ ആട്ടുന്നുണ്ട് മല്ലിയും മൊളവും പൊടിക്കുന്നുണ്ട് എല്ലാം കൂടെ ഉള്ള ഒരു മില്ലാണ് എൻ്റേത് എന്നാ കാര്യം ആ അതെ ഇപ്പം ഈ ഉണക്ക് ഈ മഴ സമയമല്ലെ അത്കൊണ്ട് കുറേ പേരുടെ ആ ആ പുതിയ പുതിയ മിഷ്യൻ ഞാൻ വാങ്ങിയില്ല അതിന് ഞാൻ ഓർഡറ് കൊടുത്തിട്ടുള്ളതേ ഉള്ളു ആ ഉണക്കി പൊടിക്കുന്ന ഉണക്കി ആട്ടുന്നത് അത് ഞാൻ ഓർഡറ് കൊടുത്തിട്ടെ ഉള്ളു അത്കൊണ്ട് ഇപ്പം ഈ മഴക്കാലമായത് കൊണ്ട് മൂന്ന് നാല് പേരുടേത് ഇവിടെ ഇരിപ്പുണ്ട് അത് ഒന്ന് ഇത് കരണ്ടുമില്ലായിരുന്നു അത്കൊണ്ട് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് രാവിലെ കൊണ്ടു വരൂ വേറെയും ഉണ്ടോ ആ ആ അവിടെ വെളിച്ചെണ്ണ ആട്ടി വിലയ്ക്ക് കൊടുക്കുന്നുമുണ്ട് നിങ്ങൾ വിലയ്ക്ക് ഇങ്ങോട്ട് തന്നാലും ഞങ്ങൾ എടുക്കും അങ്ങോട്ടും കൊടുക്കുന്നുണ്ട് ആ അത് ആ നിങ്ങൾ കൂടുതൽ കൂടുതൽ കൊണ്ട് വരികയാണെങ്കിൽ അത് നിങ്ങൾ കുറെ വെളിച്ചെണ്ണയാക്കി വിലയ്ക്ക് തന്നാൽ ഞങ്ങൾ അതെടുക്കും അത് വേറെ ഉള്ളവർക്ക് കൊടുക്കും അത് നല്ല എണ്ണയാണ് കനപ്പമൊന്നുവില്ല അഞ്ച് എട്ട് മാസം വരേയും ഇരിക്കും അതിനൊരു യാതൊരു കുഴപ്പവുമില്ല നല്ല ഒന്നാന്തരം വെളിച്ചെണ്ണയാണ് ഒരു പിന്നെ ഒത്തിരി ആ മണവുമുണ്ട് ഒത്തിരി അത് കീടലുമൊന്നും ഇല്ലാത്തതാണ് ആ അപ്പം ആ ആ അപ്പം നല്ല ഭംഗിയായിട്ട് ഇരിക്കും ഇപ്പം ഉണക്കാം മഴക്കാലമാണെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അത് ഒത്തിരി നാളൊന്നും ആയില്ല ഞാൻ ആ മിഷ്യൻ മേടിച്ചിട്ട് ആ അപ്പം മറ്റെ മിഷ്യന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഇനി ഇപ്പം അടുത്ത ആഴ്ച്ചയെ രണ്ട് ഒരു മാസം കൂടെ കഴിഞ്ഞാൽ വരത്തുള്ളു ഓണത്തിന് ശേഷം ആ അത്കൊണ്ട് ആ കൊണ്ടു വാ രണ്ട് ദിവസം കഴിഞ്ഞ് കൊണ്ടു വാ ഉം

ആ അങ്ങനെ ആ അങ്ങനെ ഉണ്ട് പച്ച തേങ്ങ കൊണ്ടു വന്നാൽ ആട്ടിത്തരും ആ അത് ആ മിഷ്യൻ ഓർഡർ ചെയ്തിട്ട് വിളിച്ചത് കാര്യം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ആ അത്കൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടു വാ കേട്ടോ ആ ആ ആ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ പോരുക വെളിച്ചെണ്ണയുണ്ട് എത്ര കിലോ വേണം ആ ആ ഉണ്ട് ഉണ്ട് അഞ്ച് അല്ല അഞ്ച് എട്ട് കിലോ ഇരിപ്പുണ്ട് അത് തരാം ആ അപ്പം നൂറ്റി നൂറ്റി അറുപത് രൂപ കേട്ടോ വെളിച്ചെണ്ണ കിലോ ആ ആ നൂറ്റി അറുപതിനാണ് കൊടുക്കുന്നത് ഇപ്പം ആ ഇപ്പം ഇച്ചിരൂടെ കഴിഞ്ഞ ഉടനെ അടുത്ത മാസമൊക്കെ ആവുമ്പം നൂറ്റി അമ്പതൊക്കെയാകും ഇപ്പം നൂറ്റി അറുപതിന് കൊടുക്കുന്നു ആ അത് ശരി ആ ആ വരുമല്ലൊ ആ ആ ആ ആ ആ ആ ഇല്ല ഇല്ല ഇല്ല ആ വച്ചേക്കാം ആ ശരി ആ ആ ആ ആ ആ ഹലോ

ആരാ വിളിക്കുന്നത് ആ ആ ആ ആ ഞാൻ പറഞ്ഞല്ലൊ വെളിച്ചെണ്ണയുടെ കാര്യമെല്ലാം പറഞ്ഞല്ലൊ ആ ഇനി ഇപ്പം രണ്ടു പേര് വന്നിട്ടുണ്ടായിരുന്നു നെല്ല് കുത്തി കൊടുക്കട്ടെ ആ ശരി ആ ആ